ഇപ്പം നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പം ദക്ഷിണേന്ത്യയിലെ ഒരു കൊച്ച് സംസ്ഥാനമാണ് നമ്മുടെ കൊച്ച് സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ അതായത് നമ്മുടെ മനോഹരമായ തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കാലിക്കറ്റ് ഇപ്പം കാലിക്കറ്റെന്ന് പറയുന്നുണ്ട് ചെലര് കോഴിക്കോടെന്നും പറയും പിന്നെ എന്ന് വച്ചിട്ടുണ്ടെങ്കില് കേരളത്തിലെ ഏറ്റവും വലിയ നഗരത്തിലൊന്ന് തന്നെയാണ് നമ്മടെ കോഴിക്കോട് ജില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠമായ പൗരാണികതയെ അവശേഷിപ്പുകളുമായി തല ഉയർത്തി നിൽക്കുന്നു നമ്മുടെ നഗരം കേരളത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ ചരിത്ര രേഖയിൽ സുഗന്ധ അതായത് സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെയുണ്ടല്ലോ അതിൻ്റെയൊക്കെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായിട്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗരത്തിലെ സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നും വിളിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധ്യകാലഘട്ടത്തിലൊക്കെ സാമൂതിരി രാജ വംശത്തിൻ്റെ ആസ്ഥാനവും പിന്നെ കാലാന്തരത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ അതായത് മലബാർ ജില്ലയുടെ ആസ്ഥാനമായിട്ട് കോ നമ്മുടെ കോഴിക്കോട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഏഴാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിലാണ് അറബികൾ ന നമ്മുടെ നഗരമായിട്ട് കച്ചവടത്തിൽ ഏർപ്പെടുന്നത് പിന്നീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനാണ് മെയ് ഇരുപതിന് പോ അതായത് നമ്മുടെ വാസ്ക്കോ ട ഗാമയൊക്കെ നമ്മുടെ കോഴിക്കോട് പിന്നെ വന്നത് അപ്പം ആ സമയത്താണ് നമുക്ക് വാണിജ്യ മാർഗ്ഗങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് പോർച്ചുഗീസ് കോട്ട ഫാക്ടറിയൊക്കെ കോഴിക്കോട് നിലനിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെക്കാലത്ത് നമുക്ക് അങ്ങനൊന്നും ഇല്ല അപ്പം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കോഴിക്കോട് നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതായത് ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് നമ്മുടെ പട്ടണത്തിൻ്റെ നമുക്ക് ഒരു പാട് ചരിത്ര പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാദി കാലം അതായത് ആദികാലം തൊട്ട് നമുക്ക് നമ്മുടെ മറ്റുള്ള സഞ്ചാരികളുടെ പറുദീസയായിരുന്നു ഇപ്പോഴും നമുക്കതിനൊന്നും ഒരു കുറവുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സഞ്ചാരികളും വിദേശികളൊക്കെ നമ്മുടെ പിന്നെ ജില്ലയിൽ ഒരു പാട് വരുന്നുണ്ട് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർ നമ്മുടെ ജില്ല കാണാനാണെങ്കിലും നമ്മുടെ ജില്ലയിലെ ഫുഡ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശസ്തമാണ് പിന്നെ നമുക്ക് കാണാനാണെങ്കിൽ നമ്മുടെ ജില്ലയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ നമ്മുടെ ജില്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിന് തന്നെ നമുക്ക് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല